വൈദ്യുതി സംബന്ധമായ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലെ വൈദ്യുതി വച്ചിരിക്കുന്നതിൻ്റെ എർത്തിങ് അത് കൃത്യമാണെന്ന് ഉറപ്പാക്കാം അതിപ്പോള് എല്ലാ വീടുകളിലും അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ് വൈദ്യുതി എയർത്തിങ് ഇനി എന്തെങ്കിലും ഇത് വന്ന് കഴിഞ്ഞാല് അത് എർത്തായി പോകുന്നതിനാണ് ഇങ്ങനെ ഒരു എർത്തിങ് സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് പല വീടുകളിലും അത് കട്ട് ആയിട്ട് കിടക്കുകയായിരിക്കും ഉപകരണങ്ങൾ ഉപയോഗത്തിൽ നിന്നും നമുക്ക് വൈദ്യു വൈദ്യുതി ആഘാതം ഏല്ക്കാം നമ്മുടെ ഇസ്തിരിപ്പെട്ടിയിൽ നിന്നും വൈദ്യുത ആഘാതമേക്കാം ചിലപ്പോൾ അതിൻ്റെ ഈ ഇൻസുലേഷനൊക്കെ പോയിക്കിടന്നാൽ വൈദ്യുതാഘാതം ഏൽക്കാം അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സർ ഗ്രൈൻഡറിൽ നിന്ന് അതിൽ നിന്ന് അതിൻ്റെ അതിനും മോട്ടർ എർത്തിങ് ഉണ്ട് അതിൽ ഈ എർത്തിങ് പോയി കിടക്കുമ്പോഴാണ് അതിൽ ഈ വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നത്

പിന്നെ നമ്മുടെ ഈ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടർ അതിൽ നിന്നൊക്കെ വൈദ്യുതിയുടെ പ്രവാഹം ഉണ്ടാകാം പിന്നെ ഇപ്പോൾ അധികമായി കണ്ടുവരുന്ന ഒരു ഇതാണ് നമ്മുടെ ഈ മെറ്റാലിക് തോട്ടികൾ തോട്ടികൾ ഉപയോഗിച്ചും നമ്മള് മാങ്ങയും ചക്കയും ഒക്കെ പറിക്കാൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അപകടത്തിൽപ്പെടുന്നത് അറിയാതെ ലൈൻ കമ്പികളിൽ മുട്ടി വൈദ്യുതി ആഘാതം ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പിന്നെ വെള്ളത്തിൽ കറണ്ട് അടിച്ച് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധി അത് വഴി കറണ്ട് അടിച്ച് മരണം സംഭവിക്കാറുണ്ട് അതിലൊക്കെ നമ്മള് കൂടുതല് ശ്രദ്ധിച്ചാൽ അതിൽ നിന്നൊക്കെ നമ്മള്ക്ക് ഒഴിവാകാവുന്നതാണ്